അതെ അതായത് നമുക്ക് കുറച്ച് തെങ്ങിൻ തൈ വേണമായിരുന്നു മ് ആ നമുക്ക് ഇപ്പോൾ ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പോലത്തെ ഒരു തെങ്ങിൻ തൈ വേണം ആ മൂന്ന് കൊല്ലം കൊണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു തെങ്ങ് തൈ വേണം ഒരു മൂന്ന് ഏക്കർ സ്ഥലത്ത് വെക്കാൻ ആണേ മൂന്ന് ഏക്കറിലോട്ട് ആ മൊത്തം തെങ്ങ് കായ്ക്ക ഇപ്പോൾ വളരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാഴ ഒക്കെ വെക്കണം വളരാൻ സമയം എടുക്കുമല്ലോ വളരണ സമയത്ത് കുറച്ച് വാഴയും പിന്നെ ഇടേ കുറച്ച് കവുങ്ങ് ഒക്കെ വെക്കാം ആ കവുങ്ങ് വെക്കണം

മ് ആ നമുക്ക് അധികം ഹൈറ്റ് വേണ്ട പെട്ടെന്ന് കായ്ക്കുന്ന ഒരു പത്ത് കൊല്ലം കൊണ്ട് കായ്ക്കണ മതി ചെറിയ തെങ്ങേ അധികം ഹൈറ്റ് ഉള്ളത് വേണ്ട ആ നമ്മൾ ഇപ്പോൾ കുഴി എടുത്ത് വളം ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് തൈ വെക്കല്ലേ ആ ആ ആ ആ ആ മ് ആ ആ ഉണ്ട് വെള്ളം ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കിണർ ഉണ്ട് മോട്ടർ ഉണ്ട് ആ ആ അത് ഇല്ലേ അപ്പോൾ ഇത് കൊണ്ട് വരുന്ന സമയത്ത് എന്നാൽ കുറച്ച്

ആ ഓക്കെ ആ ആ ഏയ് ചെന്തെങ്ങ് ചെന്തെങ്ങ് വേണ്ട ചെന്തെങ്ങ് നമുക്ക് ഇപ്പോൾ വെള്ളം കുടിക്കാൻ മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റൂ ആ ആ ആ മ് മ് ആ അതായത് അപ്പോൾ ഈ ചെന്തെങ്ങ് വേണ്ട ബാക്കി ഉള്ളത് കൊണ്ട് വാ ആ ആ വിളിച്ച് പറയാം ആ അപ്പോൾ ഈ തൈ കൊണ്ട് വരുന്ന സമയത്ത് കുറച്ച് വളവും കൂടി കൊണ്ട് വരണേ ആ ആ നല്ലത് ആണല്ലേ

ആ ഓ മ് അത് കുഴപ്പം ഇല്ല പിന്നെ ഈ തൈ നിങ്ങൾ കൊണ്ടുവന്ന് തരില്ലേ വണ്ടി നിങ്ങൾ വണ്ടി വിളിച്ച് കൊണ്ട് വരില്ലേ അതോ വണ്ടി ഞാൻ വിട്ടേക്കണോ ആ ആ അഡ്വാൻസ് കൊടുക്കണോ ഗൂഗിൾ പേ മതി ആവില്ലേ ആ ആ അപ്പോളെ ആ ശരി എന്നാൽ ആ ശരി എന്നാൽ